ആ ടീച്ചറേ ഞാൻ നിമിഷയുടെ അമ്മയാണ് ആ ഇത് പിന്നെ എങ്ങനെയാ ഓൾ പഠിത്തം എല്ലാം എങ്ങനെയുണ്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് ശ്രദ്ധിക്കാനെല്ലാം പറ്റുന്നില്ല കുറച്ച് ഉഷാറ് പഠിക്കുന്നുണ്ടല്ലേ മാത്രമല്ല ടീച്ചറേ എനിക്ക് അതെ അല്ലേ നാ പറയുന്നുണ്ടല്ലേ അല്ല എൻ്റെ ഇത് മറ്റന്നാൾ ഇപ്പോൾ ഇത് എൻ്റെ അടുത്ത റിലേഷനിൽ ഒരു കല്യാണം ഉണ്ട് ടീച്ചറേ അപ്പോൾ എനിക്ക് ഓൾക്ക് ഒരാഴ്ച്ചേൻ്റെ ലീവ് വേണമായിരുന്നു എന്തായിരുന്നെങ്കിൽ അടുത്ത ഞാൻ കൊണ്ടുപോകാതെ കൂട്ടി മാത്രല്ല ഇത് ബാംഗ്ലൂരാണ് മംഗലമുണ്ടത് അപ്പോൾ ഓൾക്ക് ഓൾക്ക് ലീവ് വേണമായിരുന്നു എക്സാം അടുത്തെത്തി എന്നറിയാം അല്ലെങ്കിലും എന്താണിപ്പോൾ തരാൻ പറ്റുവോ ലീവ്

ഞാൻ പിന്നെ ടീച്ചറേ ഓളെ ട്യൂഷന് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല

ഞങ്ങൾക്ക് ഒരാഴ്ച വേണം ആഹാ തരാൻ പറ്റില്ലേ അപ്പം തരാൻ പറ്റുമല്ലേ അങ്ങനെയല്ല വയ്ക്കേണ്ട നിങ്ങൾ പിന്നെയില്ലേ ഇത് എക്സാം എക്സാം എപ്പോൾ തുടങ്ങുമെന്നാണ് പറഞ്ഞത് പിന്നത്തെ ആഴ്ച തുടങ്ങുന്നതാണോ അപ്പോൾ ടൈം ടേബിൾ എല്ലാം കൊടുത്തിട്ടായോ അപ്പം ആയോ ഏതിപ്പോൾ സ്റ്റാർട്ടിങ് എന്നോട് പറഞ്ഞിട്ടില്ല ഓൾ എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ലീവ് എടുക്കാനുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാനതിന് എന്തെങ്കിലും പറയും പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പറയാത്തത് അല്ലേ അപ്പോൾ ഏതിപ്പോൾ ആദ്യം എക്സാം ഏത് ആദ്യം ഏ ആ ലാംഗ്വേജ് ആ ആദ്യം ഉള്ളത് ആ അത് ഞാൻ നോക്കാം ടീച്ചറേ ശ്രദ്ധിക്കാം ഇതിൻറെ ഇടയിൽ ഞാൻ ശ്രദ്ധിക്കാം എന്തായാലും ശ്രദ്ധിക്കാതിരിക്കില്ല അല്ലേ അങ്ങനെ അങ്ങനെയല്ല പിന്നെ ഇത് ഞാന് പിന്നെ ഇത് ലീവ് ലെറ്റർ ഓൾടെ കൈ കൈവശം കൊടുത്തയയ്ക്കാം ഓക്കെ അല്ലേ ആ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ